സ്ത്രീകൾ പണ്ട് നേരിടുന്ന അവസ്ഥയല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ആയപ്പോൾ ന്യൂ ന്യൂ ജനറേഷൻ രീതിയിൽ വിദ്യാഭ്യാസവും എല്ലാ വീടുകളിലും സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസിൽ നോർത്ത് ഇന്ത്യയിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പോഴും കുറച്ച് ഏരിയയിൽ സ്ത്രീകൾക്ക് വീട്ടിൽ പ്രയാസവും വിദ്യാഭ്യാസം കിട്ടാതെയും ഇരിക്കുന്നതൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത് വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ഇപ്പോൾ കിട്ടുന്ന കാരണം കേരളത്തിൽ ഇപ്പം സ്ത്രീകൾ ഉൾപ്പെടെ നഴ്സിംഗ് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നിൽ പോകുന്ന മുന്നോട്ടു പോകുന്നത് കാരണം യൂറോപ്പ് മേഖലയിൽ വളരെ അധികം ചേക്കേറുന്നുണ്ട് നമ്മുടെ ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇപ്പോൾ പഴയപോലെയൊന്നുമല്ല അവർക്ക് അവരുടെതായ ഗവൺമെൻ്റുകൾ അവർ അവർക്ക് അവർക്കുവേണ്ടി മാത്രമായിട്ട് കുറേ പ്രോജക്ടുകളും സുരക്ഷിതത്വം ഒരുക്കി വെച്ചിട്ടും ഉണ്ട് ജോലിയിലും വിദ്യാഭ്യാസത്തിലും തുല്യ അവസരങ്ങൾ ഏറെക്കുറെ ലഭിക്കുന്നുവെന്നാണ് നമ്മൾക്ക് നമ്മൾക്ക് അറിയാൻ കാണാനുമായിട്ട് സാധിക്കുന്നത് ഒരു കുടുംബത്തിലിപ്പം രക്ഷകർത്താവിനൊപ്പം തന്നെ സ്ത്രീകൾ രക്ഷകർത്താവിൻ്റെ തുല്യതയ്ക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പ്രാധാന്യം വീട്ടമ്മയുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻസായിട്ട് നമ്മൾ കാണുന്നും ഉണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം വളരെ കണ്ണിങ്ങായി എല്ലാവർക്കും തോന്നുന്ന കാരണം അവർക്കായിട്ട് പ്രത്യേക പാക്കേജുകളും അവർക്കായിട്ടുള്ള പ്രത്യേക ഇതും ഗവൺമെൻ്റും ഓരോ ലോക്കൽ ഡിപ്പാർട്ട്മെൻ്റും അത് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ കേൾക്കാനും സാധിക്കുന്നു